ഇന്നത്തെ തലമുറേനെ ആസ്പദമാക്കി പറയുകയാണെങ്കിലോ ഒത്തിരി മോഡേണാണ് ഇപ്പം ഇപ്പം എൻ്റെ ഒരിത് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മാക്സിമം ഡ്രസ്സ് എടുക്കാറ് കൂടുതലും ജീൻസും ക്രോപ്പ് ടോപ്പ്സാണ് യൂസ് ചെയ്യാറ് അതാണ് കുറച്ച് കൂടി കംഫോർട്ടബിളായിട്ട് തോന്നുന്നത് പഴയ വസ്ത്രധാരണം പറയുകയാണെ വെച്ചാലും മൊത്തം ഈ ചുറ്റി കെട്ടും അങ്ങനെയൊക്കെയുള്ളത് കൊണ്ടും അതിനോട് കൂടുതൽ താത്പര്യം ഇല്ല ഇപ്പോഴത്തെ വസ്ത്ര ധാരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചു കൂടി ഫ്രീയാണ് അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി അങ്ങോട്ട് ലൈറ്റ് വെയ്റ്റാണ് ഏത് ക കാലാവസ്ഥയിലും നമുക്ക് അത് കംഫർട്ടബിളായിട്ടിട്ടിട്ട് പോകാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്